പ്രാദേശികഭാഷയില് വാർത്താ ചാനൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിലങ്ങനെ പ്രാദേശികഭാഷയിലുള്ള വർത്താചാനലുകളില്ല ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസ് മാതൃഭൂമി ന്യൂസ് അതുപോലെത്തന്നെ ട്വൻറ്റി ഫോർ ന്യൂസ് മനോരമ ന്യൂസ് അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് എല്ലാവരും നമ്മൂടെ കേരളത്തിന്റെ തനതായ രീതിയിലുള്ള ഭാഷയിലാണ് സംസാരിക്കുന്നത് പ്രാദേശിക ഭാഷയിലായിട്ട് സംസാരിക്കുന്ന വാർത്താ ചാനലുകളെക്കുറിച്ച് എനിക്ക് അധികം അറിവില്ല പിന്നെ ആളുകള് എന്തുകൊണ്ടാണ് വാർത്തകള് കാണാൻ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വാർത്ത കാണുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നമ്മളാ ഒരു ദൃശ്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഓരോ ആൾക്കാരുടെ താല്പര്യമനുസരിച്ച് ഓരോ ഭാഷയിലാണ് അവർ ന്യൂസ് കാണുന്നത് മാതൃഭാഷയിൽ കാണുന്നവരുണ്ട് അത്പോലെ ഹിന്ദി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും കാണുന്നവരുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ കാണുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഭാഷാശൈലിയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോടുള്ള ആ ഒരു പരിജ്ഞാനം കൂടും കൂടുതലാക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കാനുള്ള ആ ഒരു കഴിവ് കൂടുതലാക്കാൻ ഹിന്ദി ഭാഷയായിക്കോട്ടെ അത് തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടി ഇൻറ്റർനാഷണൽ ലെവലിലുള്ള ന്യൂസുകളും മറ്റ് കാര്യങ്ങളും നമുക്ക് ഇംഗ്ലീഷ് ഹിന്ദി ന്യൂസ് ചാനലിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും മാതൃഭാഷയാവണ സമയത്ത് മലയാളം ന്യൂസുകൾ കാണുമ്പോൾ നമുക്ക് കൂടുതലും നമ്മുടെ പ്രാദേശികസർക്കിളിലെ കാര്യങ്ങളാണ് എന്നാലും പറയാറുണ്ട് കൂടുതലായിട്ടും ഇംഗ്ലീഷ് ചാനൽ കാണുമ്പോൾ അങ്ങനെയുള്ള ഉപകരവും കൂടി ഉണ്ട്